ചേച്ചി അതേ നമുക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി വ ഒരു വണ്ടി ബുക്ക് ചെയ്യണം അപ്പം ആ റെജി ഇല്ലേ നിങ്ങൾ ഇന്നാള് ഗുരുവായൂർ വണ്ടി വിളിച്ചുകൊണ്ട് പോയ റെജി വണ്ടി ഓടിക്കുന്നത് അപ്പം റെജിയുടെ വണ്ടി വിളിക്കാൻ വേണ്ടിയായിരുന്നു അപ്പം റെജിയുടെ എങ്ങനെയാണ് ഡ്രൈവിങ് ഒക്കെ എങ്ങനെയാണ് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ആ ശരി സ്പീഡ് ഒക്കെ ഉണ്ടായിരുന്നോ സ്പീഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ യാത്രയൊക്കെ സുഖമായിരുന്നോ നമുക്ക് കറക്റ്റ് സമയത്തിന് തന്നെയൊക്കെ അവിടെ ചെല്ലാൻ പറ്റിയല്ലേ ശരി ശരി ആ കുഴപ്പമില്ല ഞങ്ങൾക്ക് അടുത്തയാഴ്ച്ച ഒരിടം വരെ പോ ഗുരുവായൂർ പോകാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്നേരത്തേന് ഈ റെജിയുടെ വണ്ടി തന്നെ വിളിക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചതേ അപ്പം ഞങ്ങളൊരു അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അത്രയും പേർക്ക് കൂടെ ഒന്നിച്ച് പോകാൻ വേണ്ടിയാണ് ചോദിക്കുക അപ്പം റെജി നിങ്ങൾക്കാകുമ്പോൾ പോയി പരിചയമുള്ളത് കൊണ്ടാണേ നിങ്ങളെ തന്നെ വിളിച്ച് ചോദിച്ചത് കറക്റ്റ് വിവരം അറിയാമല്ലോ അപ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ചെച്ചി കൂടുതലാണോ എങ്ങനെയാണ് ആ കുറവാണല്ലേ ആ എന്നാൽ കുഴപ്പമില്ല അതുതന്നെ ആയിക്കോട്ടെ അതായിരിക്കും നല്ലത് റെജിയാകുമ്പോൾ നമുക്ക് ഞമ്മക്ക് അറിയാം പിന്നെ പേഴ്സൺ ആയിട്ട് അറിയില്ലെന്നേ ഉള്ളൂ അപ്പം കുഴപ്പമില്ല ആ അപ്പം റെജിയെ തന്നെ വിളിക്കാമല്ലേ ആ ഓക്കേ ശരി ശരി